എൻ്റെ നാട്ടിൽ പൊതുവേ ചൂട് കുറച്ച് കൂടുതൽ തന്നെയാണ് എന്നാലും വെള്ളത്തിനൊന്നും അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിട്ടൊന്നുമില്ല നമ്മൾ നിത്യോപയോഗത്തിനുള്ള വെള്ളം എല്ലാം നമുക്ക് ഉണ്ട് അതെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തൊരു തോടുണ്ട് അതുകൊണ്ട് കുടിവെള്ളത്തിനോ അങ്ങനെയൊന്നും ഞമക്ക് വെള്ളത്തിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേൽ കൃഷിപ്പണിക്ക് അതുപോലെയല്ലാല്ലോ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമില്ലേ അതുകൊണ്ട് അത് വെള്ളം ആവശ്യമുള്ള കൃഷി എന്ന് പറയുന്നത് നെല്ല് പിന്നെ നമ്മൾ ചെറിയ വിളകളായ ചീര വെണ്ട കയ്പ്പ തക്കാളി ഇതെല്ലാം ഞമക്ക് ആക്കണമെങ്കിൽ വെള്ളം വേണം ഇതിൽ നിന്നും തക്കാളി ചീരേം വെണ്ടേ കയ്പ്പയും എല്ലാം നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് വെള്ളം എല്ലാം കോരി ആക്കാം എന്ന് വിചാരിക്കാം പക്ഷേ നെല്ല് നെല്ലാക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ആവുലല്ലോ അതിന് വെള്ളം തന്നെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മള ഭാഗത്തേക്കും നെല്ല് ഒന്നും കൃഷി ചെയ്യൂല തെങ്ങ് അങ്ങനെയുള്ളതെല്ലാം തെങ്ങിനന്നാകുമ്പോൾ ദിവസവും വെള്ളം നനക്കേണ്ട കാര്യമൊന്നുമില്ല ഈ തോട്ടിലെ വെള്ളം വറ്റും നല്ല വേനൽക്കാലം ആകുമ്പോൾ ഈ തോട്ടിലെ വെള്ളം വറ്റും അപ്പോൾ നം നമ്മൾ കിണറ്റിൽ വെള്ളം ഉണ്ടാകുവെങ്കിലും നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാനുള്ള വെള്ളം കിട്ടൂല അതുകൊണ്ട് തന്നെയാണ് ഈ നെല്ല് കൃഷിയൊന്നും ഈ ഭാഗത്തൊന്നും അധികം ചെയ്ത് വരാത്തത് മരച്ചീനി തെങ്ങിൻ്റെ കൃഷി ഇതെല്ലാമാണ് നമ്മുടെ ഭാഗത്തുള്ളത് അതായത് ചിലവർ വീട് വീടുകളിൽ കിണറിൽ വെള്ളം വറ്റാത്തവരുണ്ടെങ്കിൽ അവർ വയലിൽ ചെറിയ രീതിയിലുള്ള കൃഷിയെല്ലാം ഉണ്ടാകും വെള്ളരി അങ്ങനെയുള്ള വാ സ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൃഷി ചെയ്യും അല്ലാണ്ട് നെല്ല് കൃഷി പോലുള്ളത് ഒന്നും ഇവിടെ കൃഷി ചെയ്യില്ല കാല ഇവിടുത്തെ അവസ്ഥ വളരെ മോശമൊന്നുമല്ല നമുക്ക് ചൂട് കൂടുതലാണ് നല്ല വേനലാകുമ്പോൾ കിണറ്റിൽ വെള്ളം വറ്റും അത് എല്ലാ കിണറ്റിലും അല്ല കുറെ പേരുടെ കിണറ്റിലെ വെള്ളം വറ്റും ആ സമയത്ത് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകും കടുത്ത വരൾച്ചയുള്ള കൊല്ലം മാത്രമേ ഞമ്മൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകും ബാക്കിയുള്ള നമ്മൾ ഈ മുളക് തൈ തക്കാളി ഇങ്ങനത്തതെല്ലാം വീട്ട് വീട്ടുവളപ്പിൽ നട്ടിട്ട് നമ്മൾ കിണറ്റിലെ വെള്ളം തന്നെ വലി വലിച്ച് കോരും അതിൽ ആ അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നമ്മള കാലാവസ്ഥ അത്ര അത്രയൊരു മോശമൊന്നുമല്ല നമ്മൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊന്നും ഉള്ളത് കൃഷി ചെയ്യാൻ മടിയായത് കൊണ്ട് ആണ് കുറെ പേർ കൃഷി ചെയ്യാണ്ട് നിൽക്കുന്നത് കോ എന്നാൽ താല്പര്യമുള്ള ചിലർ ആൾക്കാർക്ക് ഇത് വെള്ളമോ ഇല്ല